ഹലോ ഇത് കൃഷി ഓഫീസ് അല്ലേ ഞാൻ ഇവിടെ കുറിച്ചിയിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്ക് ഒരു ഏക്കറ് കൃഷി ഉണ്ടായിരുന്നു അത് ഈയിടെ ദേ ഈ മഴക്കും കാറ്റിനും അതെല്ലാം നശിച്ചു പോയി അതിൻ്റെ എനിക്ക് എന്തെങ്കിലും വിളവെടുപ്പ് കാലമായ കൃഷിയാണ് എനിക്ക് അതിൽ ഒത്തിരി നാശനഷ്ടം വന്നിട്ടുണ്ട് അത് നശിച്ചു പോയതിന് എനിക്ക് പ്രത്യുപകാരമായിട്ട് എന്തെങ്കിലും ഗവണ്മെൻ്റിൻ്റെ ഈ ഗവൺമെൻ്റിൽ നി ന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടാൻ ചാൻസുണ്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആരെയാണ് കാണേണ്ടത് എങ്ങനെയാണ് എന്തുവാണ് ചെയ്യേണ്ടത് ഏത് ആപ്പ്ളിക്കേഷനാണ് തരേണ്ടത്